ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാന തൊഴിൽ അവസരമെന്ന് പറയുന്നത് തൊ കൃഷിതന്നെയാണ് മേഖല അപ്പോൾ കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് കൃഷി പറയുമ്പോൾ നെൽ കൃഷിയുണ്ട് അതുപോലെ വാഴ കൃഷിയുണ്ട് അതുപോലെ ചക്കരക്കിഴങ്ങ് അങ്ങനെയുള്ള പൂള അങ്ങനെയുള്ള അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇടവിളകളായിട്ട് ഈ പയർ അങ്ങനെയുള്ള പച്ചക്കറി അങ്ങനെയും ചെയ്യാറുണ്ട് കൃഷിതന്നെയാണ് മെയിനായിട്ടുള്ള സാ പ്രധാന തൊഴിൽ മേഖലയെന്ന് പറയുന്നത് അതുപോലെ പിന്നെ കമ്പനികളാണ് വീട് പ്രദേശത്ത് തന്നെ രണ്ട് മൂന്നാല് കമ്പനികളുണ്ട് ബ്രെഡ് സോപ്പ് അതുപോലെ ഈ ടയറുണ്ടാക്കണേൻ്റെ അങ്ങനെ കുറച്ച് കമ്പനികളൊക്കെ ഉണ്ട് ഇതാണ് പ്രധാന തൊഴിൽ മേഖലയെന്നൊക്കെ പറയുന്നത് കൃഷി പറയുമ്പോൾ കൃഷിയൊക്കെ നേരിടുന്ന വെല്ലുവിളിയെന്ന് പറയുന്നത് എന്നത് നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് ഇപ്പോളത് ഈ മഴക്കാലം കഴിഞ്ഞ് വേനൽകാലമായി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് ചൂട് ഇതാകുന്നത് പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുമ്പോൾ നാൽപത്തഞ്ച് നാൽപത്താറ് ഡിഗ്രി നാൽപത്തെട്ട് ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്ക് അവിടെയൊക്കെ വരണ്ട് വിള്ളൽ പോലെയാകും നിലമൊക്കെ കൃഷിയൊക്കെ അപ്പം ഇറക്കുന്ന ആ സമയത്ത് കൃഷിയൊക്കെ ആകെ വെള്ളമില്ലാണ്ടൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോകാവുന്ന ഒരവസ്ഥ കൂടിയുണ്ട് ആ വെള്ളമില്ലായ്മയാണ് ഒരു വെല്ലുവിളിയെന്ന് പറയുന്നത് നമുക്ക് കൃഷിക്കാർക്ക് നഷ്ടം വരാനും അതുപോലെ പിന്നെയുള്ളത് വന്യ ജീവികളുടെ ആക്രമണമാണ് ആക്രമണ അവർ ഇപ്പം പന്നിയാണെങ്കിലും അതുപോലെ ആന അതൊക്കെ ഇറങ്ങി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയും കൂടി വെല്ലുവിളിയും കൂടി നമ്മുടെ പ്രദേശത്തൊക്കെ കാണാറുണ്ട്